ആയിരത്തി ഒരുനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഒൻപത് ലക്ഷത്തി നാപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി പതിനാറ്